ആ ഹലോ എടീ പിന്നെ എന്തൊക്കെ ഉണ്ട് ആ ഞാൻ വിളിച്ചതേ എനിക്കിപ്പം ഇങ്ങനെ വിദേശത്ത് പോവാനായിട്ടൊരു ഓഫറുണ്ടായിരുന്നു അതായത് ഇപ്പോൾ ഒരു സന്നദ്ധ സേവന പദ്ധതിക്കായിട്ട് അങ്ങനൊരു വർക്കിനായിട്ട് കിട്ടിയതപ്പം അതിന് പോവാനായിട്ടെനിക്ക് പാസ്പോർട്ട് വേണം ഞാൻ ഇനി ഇപ്പം എനിക്കിതൊന്നും പോയി ശീലം ഇല്ലല്ലോ ചെയ്തിട്ടൊന്നും അപ്പം നീയാവുമ്പോൾ ഈ ഇടക്കെങ്ങാണ്ട് എന്തൊക്കെയോ ചെയ്തതായിട്ട് നീ ഇങ്ങനെ പറഞ്ഞതായിട്ട് എനിക്കൊരോർമ്മയുണ്ട് എന്തിനായിരുന്നു നീ അത് പോയി ചെയ്തേ ആ എന്തായാലും എനിക്കിപ്പോൾ ഒന്ന് അപേക്ഷേടാൻ അതിൻ്റെ കാര്യത്തിനൊക്കെ ഒന്ന് പോകണം അതിന് പാസ്പോർട്ട് പോവാനും അതിൻ്റെ പാസ്പോർട്ട്ൻ്റെ കാര്യത്തിനൊക്കെയായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഒന്ന് എൻ്റടുത്ത് പറഞ്ഞു തരൂ അതുപോലെ അല്ലെങ്കിൽ നിനക്ക് സമയം ഉണ്ടെങ്കിൽ നീ ഒന്ന് എൻ്റെ കൂടെ വന്നാൽ മതി എനിക്ക് ഏഴാം തീയൊക്കെ ആവുമ്പോഴത്തേക്കാണ് അതിൻ്റത് വേണം അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പേ ഇപ്പോഴേ കൊടുക്കണ്ടേ എപ്പോഴത്തേക്കൊക്കെ കൊടുത്താലും കിട്ടും നിനക്കെല്ലാം അറിയായിരിക്കല്ലോ അപ്പോൾ നീ നിൻ്റെ സമയം നോക്കി എൻ്റെ കൂടോന്ന് വന്ന് എനിക്ക് വളരെ ഉപകാരം ആണ് അല്ലെങ്കിൽ പിന്നെ നിനക്കത്രേം സമയം ഇല്ലേ കുഴപ്പം ഇല്ല ഒന്ന് എനിക്ക് മെസ്സേജ് ചെയ്ത് തരുകയോ അല്ലെങ്കിൽ എൻ്റടുത്ത് പറഞ്ഞ് തന്ന് ഡീറ്റെയിലായിട്ട് പറഞ്ഞ് തരണേ എന്തെല്ലാം വേണം എങ്ങനൊക്കെയാണ് എപ്പോഴാണ് അതിൻ്റെ സമയം കാര്യങ്ങൾ ആധാറ് ഉണ്ടോ അങ്ങനെ നമ്മുടെ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ വേണം എപ്പോഴത്തേക്കാ അതിൻ്റെ കാര്യങ്ങളെല്ലാം എപ്പോഴത്തേക്ക് കിട്ടും ഇങ്ങനുള്ള ആകെ മൊത്തോം സംശയമായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അപ്പം നീയാവുമ്പം ഈ ഇടയ്ക്ക് ചെയ്തെന്നിങ്ങനെ അറിഞ്ഞായിരുന്നല്ലോ എൻ്റടുത്ത് പറഞ്ഞില്ലേ അപ്പോൾ നിനക്കാവുമ്പം എല്ലാ കാര്യങ്ങളും അറിയായിരിക്കല്ലോ നീ എന്നെ ഒന്ന് മെസ്സേജയച്ചോ അല്ലെങ്കിൽ നീ ഒന്ന് വരുന്നതായിരിക്കും എനിക്കേറ്റോം കൂടുതൽ നല്ലത് പിന്നെ നിൻ്റെ സമയം പോലെ ഞാൻ എന്തായാലും കുഴപ്പമില്ല നിനക്ക് പറ്റുന്ന കണക്ക് നീ മെസ്സേടാനോ അല്ലെങ്കിൽ എന്നെ ഒന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വരാനോ പറ്റൂന്നണെക്ക് നോക്കണം